സാങ്കേതിക വിദ്യ അതായത് കേരളത്തിൽ വിനോദ രംഗത്ത് എങ്ങനെയെല്ലാമാണ് സ്വാധിനിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമുക്ക് ഇപ്പോൾ അതായത് വിനോദ സഞ്ചാര രംഗത്ത് തന്നെ നമുക്ക് പറയുവാണെങ്കില് അത് നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം എന്ന് വച്ചിട്ടുണ്ടേൽ നമുക്ക് അതായത് ഇപ്പോൾ എവിടെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ എവിടെങ്കിലും ട്രിപ്പ് കാര്യങ്ങൾ ഒക്കെ പോകണം എന്നു ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ പോലെ ഇങ്ങനെ ആരെയും വിളിച്ച് ചോദിക്കണ്ട അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വേണ്ട നമുക്ക് ഇപ്പോൾ അത് അവൈലബിൾ ആണോ ആ പ്ലേസ് ഇപ്പോൾ അവൈലബിളാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിൽ തന്നെ ഒന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടേൽ നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അങ്ങനെ പിന്നെ ഇപ്പോൾ ആരോടും ചോദിക്കുക ഒന്നും വേണ്ട പിന്നെ നമുക്ക് അവിടെ അതായത് വീഗാലാൻഡ് അങ്ങനെ വണ്ടർലാ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ആദ്യം തന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ പോകുന്ന വഴിക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പോകുന്ന വഴി തന്നെ നമുക്ക് പൈസ ഒക്കെ അടച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടേൽ സാങ്കേതിക വിദ്യയുടെ ഓരോ മെച്ചപ്പെട്ട വളർച്ചയിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ തന്നെ വലിയ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ നമുക്ക് അതായത് അതൊക്കെ നമുക്ക് സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച കൊണ്ട് തന്നെയാണ് നമുക്ക് അതൊക്കെ നടക്കുന്നത്